ഞാൻ ഒരു ലോണിന് അപേക്ഷിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഏയ് കൃഷിയായി ഫാം ഫാമൊക്കെ കെട്ടാനായിട്ടുള്ള ലോൺ ഫാം

അതെ അതെ

അ അതെ രജിസ്റ്റർ ചെയ്തതാണ് ലൈസൻസ് എടുത്തിട്ടുണ്ട് അതെ അ അതെ അതെ

അ അ ഓക്കെ

അ ഓക്കെ അ എനിക്കൊര് ഫോർ ലാക്ക് ആണ് വേണ്ടത് ആയിക്കോട്ടെ

നമ്മളിപ്പോൾ രണ്ട്

ഒന്നും കൂടെ പറയുമോ കേൾക്കുന്നേയില്ല സ്ഥല പരിമിതി ഒരു മുപ്പത് സെൻറ്റാണ് സ്ഥല പരിമിതി ഒരു മുപ്പത് സെൻറ്റാണ് അ ചെറുത് ഇങ്ങനെ തുടങ്ങിവരാനുള്ള അതിൻ്റെ പ്ലാനിങ്ങിൽ ആണ്